ഞങ്ങള് കുടുംബായിട്ട് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്നത് അല്ലങ്കിൽ നമ്മുടെ നാട്ടിലുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് അതെ മലമ്പുഴ ഡാമാണ് ഇപ്പോൾ നമ്മള് ഞായറാഴ്ചകളിലോ അല്ലങ്കിൽ ഇപ്പോൾ വിശേഷ ദിവസങ്ങളിലൊക്കെ ഫാമിലിയായിട്ട് മലമ്പുഴേലൊക്കെ പോയിരിക്കും വൈകുന്നേരങ്ങളിലക്കെ പോയി കറങ്ങുന്നത് രസാണ് കാണാൻ ആ ലൈറ്റിൻ്റെ ആ ഇതൊക്കെ ഉണ്ടാകും കണ്ടിരിക്കാൻ നല്ല ലൈറ്റൊക്കെ ഇട്ട് ഡാമിന്നൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് വെള്ളം വരുന്ന സ്ഥലത്തൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് ഫുള്ള് ആയിട്ട് നമ്മള് ഡാമിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ താഴോട്ട് നോക്കുമ്പോ നല്ല ലൈറ്റൊക്കെ ഇട്ട് ഓരോരോ സെപ്പറേറ്റ് ഭാഗങ്ങൾ സെപറേറ്റ് ചെയ്ത് ലൈറ്റ് ചെയ്ത് ലൈറ്റ് ഗാർഡനൊക്കെ ലൈറ്റ് ചെയ്ത് നല്ല രസാണ് കാണാൻ അതേപോലെ നമ്മള് ആ ഡാമിന് മുകളിലൊക്കെ പോയിട്ട് താഴത്തെ വ്യൂ ഒക്കെ കാണാൻ നല്ല രസോണ് ഒരുപാട് കാര്യങ്ങള് നമുക്ക് കണ്ടിരിക്കാനുണ്ട് മലമ്പുഴ ഡാമില് ആ വൈന്നേരങ്ങളിലക്കെ പോയി ഓരോ ചായയൊക്കെ കുടിച്ച് ആ ഒരു സൈഡില് ചെയറിലങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് കുട്ടികൾക്കൊക്കെ കളിക്കാം നമ്മള് ഫാമിലി മുതിർന്നവരൊക്കെന്ന് ചെയറിലിരിക്കുക കാഴ്ചകളൊക്കെ നോക്കിയിരിക്കാം കുട്ടികളിങ്ങനെ അവിടെ താഴത്ത് കളിക്കാനൊക്കെ ഒര് ഇതോണ്ട് അതിലേക്കെ പോയി കളിച്ച് അതിങ്ങനെ ഭയങ്കര രസമാണ് ഇവരൊക്കെ കളി കണ്ടോണ്ടിരിക്കാനും അവരുടെ സന്തോഷം നമുക്ക് തന്നെ കാണാൻ പറ്റും ഒരുപാട് രാത്രി ആളുകളിങ്ങനെ വന്ന് ഇരിക്കും കറങ്ങാനൊക്കെ വന്നിട്ടുണ്ടാവും ഇവരുടേക്കെ സന്തോഷം നമുക്ക് കാണാൻ പറ്റും ഒര് ഓരോരോ ഇത് പറയുക ഒരു പ്രത്യേക വൈബാണ് മുകളിങ്ങനെ മലമ്പുഴ ഡാം മുകളിലൊക്കെ പോയി ഒന്ന് കാണാൻ റോപ്പ് വേ റോപ്പ് വേയില് നമുക്കിങ്ങനെ പോയി പറഞ്ഞാൽ നല്ല രസമുണ്ട് താഴോട്ട് നോക്കാനൊക്കെ അങ്ങനെ പോയി കറങ്ങി വരും നല്ല രസോണ് റോപ്പ് വേയിലക്കെ പോയിട്ട് വരുമ്പോൾ ആ റോട്ടിലെങ്ങനെ റോപ്പ് വേ കറങ്ങി വരുന്നത് ഒരു റോട്ടിലങ്ങനെ പോയിട്ട് വരുമ്പോഴാണ് തിരിഞ്ഞ് കറങ്ങി വരുന്നത് അപ്പോൾ നമ്മള് താഴോട്ട് നോക്കുവാണേൽ റോട്ടിക്കൂടെ വണ്ടികള് പോകുന്നതക്കെ കാണാൻ പറ്റും അത് ഡാമിൻ്റെ മുകളില് അതിക്കുടെ പോകുന്ന സമയത്ത് താഴെള്ള ആളുകളൊക്കെ നിക്കുന്നത് കാണാൻ പറ്റും കളിക്കുന്നത് കാണാൻ പറ്റും കുട്ടികളൊക്കെ നല്ല രസോണ് അത് കണ്ടിരിക്കാൻ നല്ലൊരു ഒരു അനുഭവാണ് ഈ മലമ്പുഴ റോപ്പ് വേയിലൂടെ പോകുമ്പോൾ ഉള്ളത് പിന്നെന്ന് പറയുന്നത് അവിടെ നമ്മുടെ സ്നേക്ക് പാർക്ക്ണ്ട് മലമ്പുഴേല് അത് അതിനാത്ത് കേറി ഒരുപാട് പാമ്പുകളെക്കുറിച്ചും കാണാം നല്ല രസോണ് അതില് മീനുകള്ണ്ട് അതുപോലെ മീന് കളർ ഫിഷ്കള് ഗോൾഡൻ ഫിഷ്കള് മറ്റേ മീൻ കളർ ഫിഷ്കളക്കെ ഉണ്ട് അതും നല്ല രസം നല്ല പല ഇനത്തിപ്പെട്ട മീനുകളുണ്ട് അതേപോലെ നമ്മുടെ പല ടൈപ്പ് പാമ്പുകളും ഇതൊക്കെ ഉണ്ടവിടെ ഡാമിനാത്ത് രാജവെമ്പാലയും മലമ്പാമ്പും അങ്ങനെയുള്ള കുറെ പാമ്പുകളൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് ഇപ്പോൾ ഒഴിവ് സമയങ്ങളിലക്കെ അവിടെ പോയിരിക്കാം നല്ല രസമാണ് വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് പോണം വൈകുന്നേരങ്ങളിൽ ആ ഒരു പ്രത്യേക തണുപ്പൊക്കെ വരുന്നത് വെയിലിൻ്റെ ചൂടൊക്കെ പോയി വെയിലൊക്കെ വന്ന് ചൂ വെയിലൊക്കെ പോയി തണുപ്പൊക്കെ വരുന്ന ഒരു രസമാണ് അതിലൊരു ആ ഒരു ക്ലൈമറ്റ് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു നല്ല ഒരു വൈബാണ് അത് നമ്മുക്കിങ്ങനെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷാകും നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ